ഞാൻ വായിച്ചിട്ടുള്ളതിൽ വച്ചിട്ടെനിക്കേറ്റവും എന്താ പറയുക പ്രഗൽഭനായി തോന്നിയിട്ട് ഉള്ള ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൾകലാമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെ അദ്ദേഹം ഒരു ശാസ്ത്ര ശാഖയ്ക്ക് അതായത് ബഹിരാകാശമെന്നുള്ള ഒരു ശാസ്ത്ര ശാഖയ്ക്ക് തന്നെ ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അദ്ദേഹം വളരെ അധികം നമുക്ക് നമ്മളെ തന്നെ എന്താ പറയുക പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിത്വം തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ അധികം സന്തോഷമുണ്ട് കാരണം ഇത്തരത്തിലൊരാള് നമ്മളുടെ നാട്ടില് തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജനിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ അധികം അഭിമാനാണ് തോന്നാറുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ കണ്ടുപിടുത്തം നമുക്ക് ഇന്ത്യയെ തന്നെ പ്രതിനിധീകരിക്കാൻ സാധിച്ചത് അതായത് ഒരു ബഹിരാകാശ മേഖല പുറം രാജ്യക്കാര് മാത്രം എന്താ പറയുക എത്തി പിടിച്ചിരുന്നിരുന്നൊരു മേഖലയില് വളരെ അധികം സംഭാവനകള് നൽകാനായിട്ട് എന്താ പറയുക എ പി ജെ അബ്ദുൾകലാം എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കേറ്റവും അധികം എന്താ പറയുക ഇഷ്ടം തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് അഗ്നിച്ചിറകുകളാണ് വളരെ അധികം എന്താ പറയുക നമ്മളെ ഇൻസ്പയേഡാക്കുന്ന തരത്തിലുള്ള ഒരു ബുക്ക് തന്നെയാണ് എന്താ പറയുക നമ്മളുടെ ഈ പറഞ്ഞ അഗ്നിച്ചിറകുകളെന്ന് പറയുന്ന ബുക്ക് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം തോന്നിയിട്ടുള്ളത് എ പി ജെ അബ്ദുൾകലാമിനോട് തന്നെയാണ്